ഞാൻ രണ്ടാഴ്ച്ച മുൻപ് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തുണ്ടായിരുന്നു ടി ഷർട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പരിപാടിക്ക് ഇടാൻ വേണ്ടി ഓർഡർ ചെയ്തതാണ് ടി ഷർട്ട് ഞാൻ കൊടുത്ത സൈസ് മുപ്പത്തിയെട്ടായിരുന്നു അപ്പോൾ അവർ ആ ഡെലിവറി സമയം ഞാൻ ചെയ്ത രണ്ടുദിവസം എന്നാണ് പറഞ്ഞത് പിന്നെ അവർ വിളിച്ചു പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് മൂന്നാല് മൂന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്കത് കിട്ടിയത് അതിൻ്റെ വരണ സമയത്ത് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും അത്ര ഇതുണ്ടായിരുന്നില്ല പാക്കേജ് പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അവർ അത് അപ്പോൾ അവർ പാക്കിങ്ങിൻ്റെ സമയം അപ്പോൾ അവർ പറഞ്ഞു ഡെലിവറി സമയത്ത് അതല്ല അത് അവർ ട്രാവലിംഗ് സമയത്ത് പൊട്ടിയതായിരിക്കും എന്നാണ് അവർ പറഞ്ഞത് പിന്നെ കുഴപ്പമില്ല എന്നാൽ ശരി കുഴപ്പമില്ല പറഞ്ഞിട്ട് അത് മേടിച്ചു മേടിച്ചു നോക്കാണ് അതിൻ്റെ സൈസ് നോക്കാണ് നാല്പത്തിരണ്ട് അതായത് വലിയ സൈസാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വേറെ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും പ്രോപ്പറല്ല നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യണ സമയത്ത് കാണണതൊക്കെ അതിൽ കാണണ പോലെയൊന്നുമല്ല അതിൻ്റെ ഡിസൈനും കാര്യങ്ങളുമുണ്ടായിരുന്നത് പിന്നെ വേറെന്താ വെച്ചു കഴിഞ്ഞാൽ അതിൽ ബാക്കിൽ പ്രിൻറിംഗ് ഉണ്ടായിരുന്നു നമ്മൾ ഓർഡർ ചെയ്യണ സമയത്ത് ഒരു ഓമിൻ്റെ ഒരു ചിത്രമുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ ആ ചിത്രം ഇബ്ബടെ ഓർഡർ ചെയ്ത് വന്നപ്പോൾ അതിൽ ചിത്രവും കാര്യങ്ങളും ഒന്നുമില്ല പ്രിന്റ്റിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കത് യൂസ് ആകാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഓർഡർ ചെയ്ത നെക്ക് കോളറുള്ള ടൈപ്പ് ബനിയനായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വന്നപ്പോൾ അതിൽ കോളറുമില്ല ആകെ നമുക്ക് നമ്മുടെ ആ ഫങ്ക്ഷനിൽ ഇടാനും പറ്റിയില്ല പൈസ പിന്നെ അത് ഓർഡർ തിരിച്ചത് ഞാൻ റിട്ടേൺ ചെയ്തു പക്ഷെ അത് ഇത് വരെയായിട്ടും എനിക്ക് അതിന് അതിൻ്റെയൊരു പൈസയും കയറിയിട്ടില്ല വേറെ സാധനവും വന്നിട്ടില്ല